തീർച്ചയായും മതപരമായ ഉത്സവങ്ങളിലും പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അമ്പലങ്ങളിലായാലും എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ അവർ സദ്യ ഒരുക്കും പായസം നിവേദ്യം അങ്ങനെ ഉള്ള കാര്യങ്ങളായിരിക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ അവരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പള്ളി പെരുന്നാൾ അങ്ങനെയുള്ള കാര്യങ്ങൾകൊക്കെ അവർ നോൺ വെജ്ജാണ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ മുസ്ലിംസും അവർ അവരുടേതായ ആചാരങ്ങൾക്ക് അനുസരിച്ച് നെയ്ച്ചോറും ബിരിയാണി അങ്ങനെയുള്ള ഭക്ഷണ രീതികളായിരിക്കും അപ്പം പലവരും പല രീതിയിലും ഫുഡ് വയ്ക്കുന്നത് പക്ഷേ ഓണം അങ്ങനെയുള്ള ഉത്സവം കോമൺ ആയിട്ടുള്ളതിനൊക്കെ എല്ലാവരും സദ്യ ഒരുക്കുക അതൊക്കെ ഒരു സന്തോഷം അതുപോലെ തന്നെ അതുകൊണ്ട് ഓരോ മത വിശ്വാസങ്ങളുടെ അടിച്ചേൽപ്പിക്കുന്നത് അല്ല എന്നാലും അതൊരു ഇത് ഇതായിട്ട് പാരമ്പര്യമായിട്ട് ആൾക്കാർ തുടരുന്നുണ്ട് ഇപ്പോഴും